നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലങ്ങൾ വരെ വിദ്യാഭ്യാസത്തിന് നല്ല രീതിയിൽ പുരോഗമനം വന്നിട്ടുണ്ട് ഈ ഒരു ഈ ഒരു ഏറ്റവും അടുത്ത കാലത്ത് കുറച്ച് പുരോഗമനം കുറഞ്ഞു എന്ന് ഉണ്ടെങ്കിലും അതിന് മുൻപുള്ള കാലഘട്ടങ്ങളിലൊക്കെ വിദ്യാഭ്യാസം നമ്മുടെ ഇന്ത്യയിൽ നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചിട്ടുണ്ട് സ്വഭ ഈ ഒരു ഈ ഒരു ഒരു എങ്കിലും ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ പുരോഗമനം ഉണ്ടെങ്കിലും ഈ അർബൻ റൂറൽ ഏരിയാസിൽ ഗ്രാമീണ നഗര ഭാഗങ്ങളിൽ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ നല്ല

തുടങ്ങി വൈ ഫൈ തുടങ്ങി ഒരുപാട് സൗകര്യങ്ങൾ ഈ നഗരഭാഗത്തൊക്കെ എന്തു ചെയ്യുകയാണ് അവർക്ക് പെട്ടെന്ന് തന്നെ വളരെയധികം

പലപ്പോഴും അവിടെ അടിസ്ഥാന ഒരു ബേസിക് ഇൻ ഇൻഫ്രാസ്ട്രക്ച്ചർ പോലും അവിടെ കുറവായിരിക്കും അടിസ്ഥാന സൗകര്യം പോലും അവിടെ ഉണ്ടാവുകയില്ല എവിടെ ഉണ്ടാവുകയില്ല ഒരു ഉൾപ്രദേശങ്ങളിൽ ഉള്ള സ്കൂളുകളിൽ ഒന്നും ഉണ്ടാവുകയില്ല ഇപ്പം ഉദാഹരണത്തിന് നോക്കുമ്പോൾ ബാത്രൂം പോലും വേണമെങ്കിൽ അത്ര നല്ല രീതിയിൽ നല്ല ബാഡ് ആയി നിൽക്കുന്ന രീതിയിൽ ആകും

അതുപോലെ തന്നെയാണ്

അവർക്ക് ഒരു അവർ ഒരു വേൾഡ് വൈഡ് വ്യൂ ആണ് ഉണ്ടാക്കി എടുക്കുക ബ ബാക്കിയുള്ള കുട്ടികൾക്ക് ഈ ഒരു